ഹലോ നമസ്കാരം ഇത് ഫ്ലിപ്പ്കാർട്ട് ഓൺലൈൻ ഷോപ്പല്ലേ ആ എൻ്റെ പേര് ആതിര എന്നാണ് എൻ്റെ സ്ഥലം വരുന്നത് എർണാകുളത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കെ വീട്ടിലേക്കൊരു ടി വി നോക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ഒരു ആഡ് കണ്ടായിരുന്നു ഇപ്പോൾ ഇലക്ട്രോണിക് അപ്ലയൻസസിനൊക്കെ

ഓ എൽ ജി പാനസോണിക് ഒണീഡ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഓ ഓ അപ്പോൾ ഉള്ളതിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ടി വി ഏതാണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നു പറയാമോ ഇതെങ്ങനെയാണ് അപ്പോൾ മന്ത്ലി ആണോ അല്ലെങ്കിൽ നമുക്ക് ഫുൾ പേയ്മെൻറ് അടച്ച് വാങ്ങണോ ഓ ഓക്കെ ഓക്കെ ആ രണ്ട് ഓപ്ഷനുണ്ടല്ലേ ആ അതു പോലെ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങണോ അതോ മറ്റുള്ള വെബ്സൈറ്റിൽ പോയിട്ട് വാങ്ങണോ മറ്റുള്ള വെബ്സൈറ്റിൽ ഇതു പോലെ ഓഫറുണ്ടോ ആമസോൺ അതു പോലെ തന്നെ മറ്റ് വെബ്സൈറ്റൊക്കെ ഇപ്പം ഈ ഇലക്ട്രോണിക് അപ്ലയൻസൊക്കെ വിൽക്കുന്ന വെബ്സൈറ്റൊക്കെ ഉണ്ടല്ലോ ഓ അതേ അല്ലേ ഓ ഓ ഓ ഓക്കെ പിന്നെ ഓഫേഴ്സൊക്കെ ഇങ്ങനെ വന്നത് വിലയും കാര്യങ്ങളൊക്കെ ഒന്നു പറയാമോ ആ അതേ അല്ലേ ഓ ഓക്കെ ഓക്കെ താങ്ക് യൂ സാർ വിവരങ്ങൾ നൽകിയതിന് നന്ദി